ട്രേഡ് യൂണിയനസും കാർഷിക മേഖലക്ക് ഭീഷണി ഉയർത്തുന്നു എന്ന് വെച്ചാൽ ഈ ട്രേഡ് യൂണിയനുകൾ എന്ത് ചെയ്യുന്നത് അവരെ എന്ത് ചെയ്യുന്നത് അവർ എന്താണ് ചെയ്യുന്നത് അവർ പണം വാങ്ങുകയാണ് ഒരുപാട് പണം വാങ്ങുകയാണ് അനർഹമായ രീതിയിൽ അവർ പണം സമ്പാദിക്കുകയാണ് കർഷകർ എന്ത് ചെയ്യുന്നത് അവർ അധ്വാനിച്ച് കൊണ്ട് പണം സമ്പാദിക്കുകയാണ് എന്നാൽ ഈ ട്രേഡ് യൂണിയനുകൾ ചെയ്യുന്നത് അവർ അധ്വാനിക്കാതെ അവർ ആളുകളുടെ പണം അപഹരിച്ച് കൊണ്ടാണ് ഈ പണം സമ്പാദിക്കാൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ തന്നെയാണ് കാർഷിക മേഖലയ്ക്ക് ട്രേഡ് യൂണിയനിസം ഒരു ആക്ഷേപം ഭീഷണിയാണ് എന്ന് ആക്ഷേപം ഉയരുന്നത് കാരണം ഈ ട്രേഡ് യൂണിയനുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം ഈ ബസ് സ്റ്റാൻഡിലും അത്തരത്തിലുള്ള രീതികളിലൊക്കെ നി അവരെ എന്ത് ചെയ്യുന്നത് അവർ അവരുടെ ഒരു വില അവരെ തീ അവർ അങ്ങ് തീരുമാനിക്കുകയാണ് അപ്പം കർഷകർ എന്ത് ചെയ്യുകയാണ് അവർ നിർബന്ധിതരാവുകയാണ് അവരെ തീരുമാനിക്കുന്ന വിലക്ക് വേണ്ടി കൊടുക്കാനും അവർ തീരുമാനിക്കുന്ന വിലക്ക് വിൽക്കാനും ഈ ആളുകൾ ഈ കർഷകർ നിർബന്ധിതരാവുകയാണ് അങ്ങനെ ഒരു രീതി വരുമ്പോൾ എന്ത് ചെയ്യണതാണ് കാർഷിക മേഖലക്ക് ഇത് വളരെ ഒരു ക്ഷീണമായി മാറുകയാണ് ഈ ട്രേഡ് യൂണിയനുകളുടെ ഇത്തരം പ്രവർത്തികൾ ഇത്തരം പ്രവർത്തികൾ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും കാർഷിക മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് ലാഭം ഉണ്ടാവുകയുമില്ല എന്നാലോ ട്രേഡ് യൂണിയൻ നടത്തുന്ന അല്ലെങ്കിൽ അതിന് മേൽനോട്ടം വഹിക്കുന്ന ആളുകൾക്ക് ഒരുപാട് അനർഹമായ ലാഭങ്ങൾ ലഭിക്കുകയും ചെയ്യും ഈ ട്രേഡ് യൂണിയനുകളിലൂടെയൊക്കെ ലഭിക്കുന്ന ലാഭം എന്ന് വെച്ചാൽ അത് കർഷകരെ പിഴിഞ്ഞ് കൊണ്ടും അവരെ വഞ്ചിച്ച് കൊണ്ടും നേടുന്ന ഒരു ലാഭമാണ് ട്രേഡ് യൂണിയനുകളുടെ ലാഭം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ ട്രേഡ് യൂണിയനുകളിൽ പണം ഉണ്ടാക്കുന്ന രീതി ഒരിക്കലും പ്രോത്സാഹിപ്പിക്കപ്പെടാൻ പറ്റുന്നതല്ല മാത്രവുമല്ല അത് വളരെയധികം നിരുത്സാഹപ്പെടുത്തേണ്ട ഒരു രീതിയുമാണ് ഈ വില ആദ്യം തന്നെ നിശ്ചയിച്ച് കൊണ്ട് കർഷകരെ അത് ആ ഒരു വിലക്ക് വിൽക്കാൻ വേണ്ടി നിർബന്ധിക്കുക എന്ന് വെച്ചാൽ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കപ്പെടാൻ പാടില്ലാത്ത ഒരു രീതികളാണ് കാരണം ഇന്ത്യ എന്ന് വെച്ചാൽ ഒരു കാർഷിക കാർഷിക കാർഷിക കാർഷിക മേഖലയുടെ നട്ടലായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഒരു ഒരു സമ്പദ് സമ്പദ് വ്യവസ്ഥ ആണ് കാർഷിക കാർഷിക മേഖലയും മാത്രമല്ല വാണിജ്യ മേഖലയും അതുപോലെ തന്നെ വ്യവസായ മേഖലയും അതുപോലെ തന്നെ എല്ലാം കൂടി ഒരു കൈ കോർത്ത് കൊണ്ട് ഒരുമിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയുടെ എന്നും മനസ്സിലാക്കിക്കൊണ്ട് ഈ ട്രേഡ് യൂണിയനുകളുടെ ഈ ഒരു അനാവശ്യമായ രീതികൾ തീർച്ചയായും മാറ്റേണ്ടതുണ്ട്